ആ വെരി ഗുഡ് ആ പറയൂ

ആ സാധാരണ ആ കു ആ കൂട്ടുകാരന്മാർ ഉണ്ടോ ഇവിടെ ഉണ്ടോ ആ ആ ഓക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ ഒളവണ്ണത്ത് ആണോ ഒളവണ്ണത്ത് ആണോ പഠിക്കുന്നത് ആ ശരി അല്ല ഇവിടെ എടുക്കുന്ന് ഇപ്പോൾ ട്രയൽസ് ഇപ്പോൾ പിള്ളേരെ ഞാൻ എടുക്കുന്നുണ്ട് ഫുട്ബോളിൽ ആ ബൈ എപ്പോഴും കളിക്കാറുണ്ടോ സെലക്ഷൻ നമ്മൾ ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ സെലക്ഷൻ ഇല്ല നമ്മൾ ആദ്യം എന്താണ് പറയുക ട്രെയിനിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് ആണ് സെലക്ട് ചെയ്യുക ട്രയൽസ് ഒക്കെ വെച്ചിട്ട് പിന്നെ ആണ് എന്താണ് പറയുക സെലക്ട് ചെയ്യുന്നത് ആ അങ്ങനെ കളി ഒക്കെ നോക്കിയിട്ട് ആണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ക്യാമ്പ് പ്ലസ് വൺ അല്ലേ പഠിക്കുന്നത് അപ്പോൾ പിന്നെ ആ അപ്പോൾ അപ്പോൾ രാവിലെ വേണ്ട വൈകിട്ട് ആക്കാം ക്യാമ്പ് വൈകിട്ട് വൈകിട്ട് ഒരു അഞ്ച് മണിക്ക് അഞ്ച് ടു ആറ് ഒരു മണിക്കൂറ് അല്ല റെഗുലർ ആയിട്ട് ഉണ്ട് സൺഡേ ലീവ് ആയിരിക്കും സൺഡേ നമ്മൾ മാച്ച് മാച്ച് വയ്ക്കാറുണ്ട് ഇവിടെ ഗ്രൗണ്ടിൽ നമ്മളെ ഗ്രൗണ്ടിൽ ആ അവിടെ പിള്ളേർ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മാച്ച് വയ്ക്കാറുണ്ട് ട്രയൽസ് നടത്താറുണ്ട് സൺഡേയിൽ ഒക്കെ ട്രയൽസ് ഒക്കെ ആയിരിക്കും കൂടുതൽ നടത്തുക ആ അതിന് ഉള്ള പ്രത്യേകം നമ്മൾ ഇവിടെ ട്രെയിനിംഗ് കൊടുക്കുന്നുണ്ട് വാം അപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് സ്ട്രെച്ചിംഗ് എക്സർസൈസുകൾ ഒക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്

ആ അതാണ് ആ അതാണ് ആ ആ നമ്മൾ ആദ്യം മര്യാദയ്ക്ക് ഇതൊന്നും ചെയ്യാതെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ആദ്യം എല്ലാം മനസ്സിലാക്കണം അതിന് ഉള്ള ക്ലാസ്സ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി ഇല്ലാതെയും എങ്ങനെ കളിക്കണം എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുന്ന പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഫീസ് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ ഒരു ആയിരം രൂപ ആണ് ഫീസ് വെച്ചിരിക്കുന്നത് അഡ്മിഷൻ പിന്നെ നമ്മൾ മന്ത്ലി മന്ത്ലി ആ മന്ത്ലി നമ്മൾ ഒരു സെവൻ ഫിഫ്റ്റി വെച്ച് വാങ്ങിക്കുന്നുണ്ട് അതിന് നമ്മൾ ഇപ്പോൾ ഇടുന്ന ജേഴ്സി അങ്ങനെ ഉള്ള കാര്യങ്ങൾ ബൂട്ട് ബോൾ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ആ കിറ്റ് നമ്മൾ കൊടുക്കും കാരണം പിന്നെ കളിക്ക് അനുസരിച്ച് നമ്മൾ എന്താണ് പറയുക ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ക്ലബ്ബിൽ നമ്മൾ പിള്ളേർ കളിക്കുന്നുണ്ട് കുറേ പിള്ളേർ ക്ലബ്ബിൽ കളിക്കാൻ പോയിട്ടുണ്ട് അതുപോലെ ഡിസ്ട്രിക്ടിൽ ആ അതെ അതെ അജ്മൽ ഒക്കെ ഇവിടെനിന്ന് പോയതാണ് അജ്മൽ പിന്നെ സന്ദീപ് അഭിജിത്ത് അങ്ങനെ കുറച്ച് പിള്ളേർ ആ ആ അതന്നെ നമ്മൾ കളി നോക്കിയിട്ട് ആണ് ആദ്യം തന്നെ ട്രയൽസ് നടത്തില്ല ആദ്യം നമ്മൾ ട്രെയിനിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ കളി ഒക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ട്രയൽസ് നടത്തിയിട്ട് സെലക്ട് ചെയ്യുന്നത്

ആ അല്ല അത് കുഴപ്പമില്ല നമുക്ക് ഇവിടെ വന്ന് ഇവിടെ കളിച്ച് നോക്കിയിട്ട് നമ്മുടെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും നമ്മൾ വീട്ടിൽ അവിടെ കളിക്കുന്നത് പോലെ അല്ല ആ ശരി അപ്പോൾ നീ തിങ്കളാഴ്ച്ച വൈകിട്ട് പോര് നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഒരു ആയിരം രൂപ ഫീസ് അഡ്മിഷൻ അടയ്ക്കണം ഞാൻ ഇവിടെനിന്ന് നമ്മള ജേഴ്സിയും അതൊക്കെ തരുവേ അതിന് ഉള്ള ചിലവ് ആണ് ആ തിങ്കളാഴ്ച്ച വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി ആ ആ വൈകിട്ട് ഞാൻ ഡെയിലി ഉണ്ടാവും ഓക്കെ അപ്പോൾ നീ വൈകിട്ട് അഞ്ച് മണിക്ക് പോര് ആ ശരി ആ ശരി ശരി ആ ഓക്കെ അപ്പോൾ നീ വൈകിട്ട് പോര്